ആ നമുക്ക് എല്ലാ പൂക്കളും വേണം എല്ലാ കളറിലുള്ള പൂക്കളും വേണം ആ എ ആ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടാകും അല്ലെ അതെ എനിക്ക് ഇപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് ചെണ്ടുമല്ലിടെ രണ്ട് കളർസില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതലായിട്ട് വേണേ ആ കമ്പനിലേക്കാ ആ എട്ടടി ആ അത്ര മതിയാവും ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് എങ്ങനെ അപ്പോൾ ചെണ്ടുമല്ലി ഇപ്പോൾ ഒരു കിലോൻറെ കണക്കിലല്ലേ എടുക്കുക പൂവ് അങ്ങനെ തന്നെയാ ഇപ്പോൾ റോസാ പൂ എണ്ണംന്ന് പറയുമ്പോൾ അങ്ങനെ റെഡ് മതി റെഡിന് കുറച്ച് അങ്ങനെ മതി ചെണ്ടുമല്ലി പൂ ഒരു പത്ത് അഞ്ച് കിലോയൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു കിലോയോക്കെ എത്രയാണ് ഓക്കേ

കിലോന്ന് ചോദിക്കുമ്പോൾ ഒരു പത്ത് കുറച്ച് ഒരു പത്ത് കിലോ അങ്ങനെ മതിയാവും ആ മതിയാവും ഈ ജമന്തിയൊരു സെൻ്റർ പോർഷൻല് ഇടാൻ അപ്പോൾ ഒരു അഞ്ച് അങ്ങനെ മതിയാവും സൂര്യകാന്തി ആ കുറച്ച് അതൊക്കെ എല്ലാം കുറച്ച് കുറച്ച് ആയിട്ട് മതിയാവും ഈ ആ ഇപ്പോൾ ഞങ്ങൾ തലേ ദിവസം വന്ന് എടുക്കണോ അല്ല എത്തിക്കാൻ പറ്റുവോ കമ്പനി പാലക്കാട് ആണ് അപ്പോൾ അവിടെ എത്തിക്കാൻ പറ്റുവൊന്ന് ചോദിക്കാനാണ് ആ എന്നാൽ പിന്നെ ആ ഏഴ് മണി ആവുമ്പോത്തിന് എത്തിച്ച് തന്നാൽ മതി വാടാമല്ലി പൂവ് അത് ഇത്തിരി കൂടുതൽ എടുക്കാം അല്ല അത് ഒരു അഞ്ച് കിലോ എടുക്കാം മൂക്കുറ്റി മുക്കൂറ്റി വെച്ചോളൂ ആ ആ ഞാൻ ലൊക്കേഷൻ അയച്ച് തരാട്ടോ ആ ഇപ്പോൾ തരാം

ഓക്കേ താങ്ക്യു